ഗുഡ് മോണിങ് അവറാച്ച താങ്കൾ എന്നെയൊരു കോമഡി ഷോയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ അതു പ്രകാരമുള്ള ഒരു കോൾ ആണ് ഇത് അപ്പം എനിക്ക് തിരക്കാണ് എന്നാൽത്തന്നെ ഞാൻ അതിൻ്റെ ഡേറ്റും അതിൻ്റെ സമയവും ഒന്ന് തന്നാൽ ഞാൻ ബുക്ക് ചെയ്ത് എനിക്ക് ബുക്ക് ചെയ്ത് ഇടാമായിരുന്നു അത് ഒന്ന് കൺഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിളിക്കുന്നത് പിന്നേ കോമഡിയായതുകൊണ്ട് കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുന്നു കാരണം കോമഡി നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് ശീലമുള്ള ആളായതുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഒന്നുകൂടെ ആ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യുമെങ്കിൽ വളരെ ഉപകരമായിരുന്നു ഡേറ്റ് ടൈംമ് അപ്പം അതനുസരിച്ച് എൻ്റെ തലേദിവസത്തെ പ്രോഗ്രാമ് ഒക്കെ കുറച്ച് ഒരു തയ്യാറായിട്ട് എനിക്ക് ആ കൃത്യ സമയത്ത് അവിടെ എത്തിച്ചേരാനും വേണ്ടിയിട്ടാണ് അപ്പം ദയവായിട്ട് നിങ്ങളൊന്ന് ഉറപ്പ് ഉറപ്പാക്കണം ആ പിന്നെ ഗൂഗിൾ ഉള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആ ലൊക്കേഷൻ കൂടെ ഒന്ന് ഇട്ടേര് ഞാൻ ആ സമത്ത് തന്നെ രാവിലെ തന്നെ അവിടെ എത്തിയേക്കാം താങ്ക് യൂ